നമ്മുടെ നീന്താൻ എവിടെ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് കുളത്തിൽ നീന്തുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വലിയ കുളങ്ങളിൽ നീന്തുകയാണെന്നുണ്ടങ്കിൽ അത് നല്ലതാണ് പിന്നെ അതേ പോലെ തന്നെ തടാകങ്ങളിൽ നീർച്ചാലുകൾ ഒഴുകുന്ന നീ തടാകങ്ങളിൽ നീന്തുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഞാൻ മണി മല ആറിൻ്റെ തീരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതേ പോലെ തന്നെ പമ്പയാറും ഈ അതിലൂടെയൊക്കെ ഈ അതിൻ്റെ ഒരു കൈ വഴിയും ഈ പറയുന്ന സ്ഥലങ്ങളിൽ എൻ്റെ വീടിൻ്റെ സ്ഥലത്ത് കൂടെ കൈ വഴി കടന്ന് പോകുന്നുണ്ട് അതായത് പമ്പയാറും മണിമലയാറും കൂടെ ചേർന്ന് പോകുന്ന ഈ സ്ഥലത്ത് താമസിക്കുന്ന എനിക്ക് ആറ്റിൽ നീന്തി കുളിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ താൽപ്പര്യമുള്ളത് ആറ്റിൽ നീന്തി കുളിക്കുന്ന അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നല്ല കാര്യമാണ് ഒരു നല്ല എക്സസൈസ് ആണ് ശുദ്ധ ജലത്തിൽ കുളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു നല്ല കുളിർമ്മ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഒരു നല്ല എക്സസൈസ് ലഭിക്കുന്നു അതേ പോലെ തന്നെ ഈ പറയുന്ന ആറുകളും തോടുകളും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പം വളർന്ന് വരുന്ന തലമുറയ്ക്കും നീന്തൽ അറിയില്ലാത്ത ഒരു രീതിയിലൂടെയാണ് ഇപ്പോൾ വന്ന് കൊണ്ടിരിക്കുന്നത് അവർക്കും ഇത് നീന്തി പഠിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ആറുകളും തോടുകളുമൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് ഒരു നല്ല എക്സസൈസ് ലഭിക്കുന്ന ഒരു കാര്യമായത് കൊണ്ട് ഈ പറയുന്ന ജലാശയത്തിൽ നീന്താനാണ് ഞങ്ങൾ പോകാറുള്ളത് കുട്ടികളെ എൻ്റെ മക്കളെ ഒക്കെ ഈ പറയുന്ന

അങ്ങനെ ഒക്കെയുള്ള ഒരു നല്ല കാര്യങ്ങൾ ഈ നീന്തലുമായി ബന്ധപെട്ടുണ്ടാകുമ്പോൾ നമുക്ക് നമുക്ക് ശരീരത്തിന് നല്ല ഒരു എക്സസൈസ് ലഭിക്കുന്ന ഒരു കാര്യമാണ് അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്